എത്ര മണിക്കൂറ് വൈദ്യുതി ലഭിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ചില ദിവസം നമുക്ക് ഇരുപത്തിനാൽ മണിക്കൂറും വൈദ്യുതി ഉണ്ടാവും പക്ഷേ അതൊക്കെ നമ്മളെ കാലാവസ്ഥക്കനുസരിച്ചാണ് വൈദ്യുതിയുടെ ലഭ്യത എന്ന് പറയുന്നത് അതായത് മഴക്കാലം ഒക്കെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മഴ നല്ലവണ്ണം ഒന്ന് ശക്തിയായിട്ട് പെയ്താലോ ഒന്ന് ഇടി പൊട്ടിയാലോ മിന്നെറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങളൊക്കെ പൊട്ടി വീണാൽ നമുക്ക് വൈദ്യുതി പോകും പക്ഷേ ആ സമയത്തൊക്കെയുള്ള വൈദ്യുതി പറഞ്ഞാൽ കുറേ ടൈമ് നീണ്ട് നിൽക്കുന്നതാണ് അപ്പം ചിലപ്പം ഇരുപത്തിനാല് മണിക്കൂറുതന്നെ വൈദ്യുതി ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ഒന്ന് രണ്ട് ദിവസം ഒക്കെ അങ്ങനെ ട്വൻറി ഫോർ ഹവേഴ്സ് തീരെ വൈദ്യുതി ഇല്ലാത്ത ദിവസം ഉണ്ടാവലുണ്ട് എന്നാൽ ഇരുപത്തിനാൽ മണിക്കൂറ് ഫുള്ള് നമുക്ക് വൈദ്യുതി കിട്ടുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് നമുക്ക് ലഭ്യമാകുന്ന വൈദ്യുതി എന്ന് പറയുന്നത് പക്ഷേ ഈ മഴക്കാലത്തുള്ള വൈദ്യുതി ഉണ്ട് പറഞ്ഞാൽ നമുക്ക് കൊതുകുകളൊക്കെ കൂടുതലുള്ളൊരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് വൈദ്യുതി പോയാലേ കരണ്ടോ അങ്ങനൊന്നും ഫാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതുമൂലം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഉള്ളത് വേനൽക്കാലത്ത് ഇതുപോലെ എന്തെങ്കിലൊക്കെ ശക്തമായിട്ടുള്ള വല്ല കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈൻമാൻമാർക്ക് വല്ല പണികളോ നമ്മളെ മരം വെട്ടുന്ന അങ്ങനെ എന്തെങ്കിലൊക്കെ പണികളൊക്കെ ഉണ്ടാവും വൈദ്യുതി ലൈനിൽ കൂടി പോകുന്നേ അങ്ങനൊക്കെയുള്ള ടൈമിലും വൈദ്യുതി വിച്ഛേദിക്കാറുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഒരു ഒന്നോ രണ്ട് മണിക്കൂറൊക്കെയാണ് വൈദ്യുതി പോവുക പക്ഷെ മഴക്കാലത്താണ് ചിലപ്പോൾ നമുക്ക് ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് മഴക്കാലത്താണ് വേനൽക്കാലത്ത് നമുക്ക് എന്താ മിക്കവാറും അർദ്ധരാത്രികളിലൊക്കെയാണ് വൈദ്യുതി മുടങ്ങാറുള്ളത് കാരണം നമ്മളൊരു ഉറക്കത്തിലെത്തുന്ന സമയത്തൊക്കെ വൈദ്യുതി പോയാൽ ചിലപ്പം പുലർച്ച ഒക്കെ ആകുമ്പോഴേ നമുക്ക് ആ വൈദ്യുതി ഉണ്ടാവുള്ളൂ അവരെ ഒന്ന് വിളിക്കാനുള്ള കണ്ടീഷനും ആവില്ല അവർക്കോട്ടോ വന്ന് പണിയെടുക്കില്ല പക്ഷെ ചില ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് അങ്ങനെ ശരിയാക്കലും ഉണ്ട് എന്നാലും കൂടുതൽ നമുക്ക് മഴക്കാലത്താണ് വൈദ്യുതി കൂടുതലായിട്ടും പോവാറുള്ളത് വേനൽക്കാലത്ത് നമുക്ക് ഇതുപോലെ ഭയങ്കര ഇപ്പോൾ ഓരോ വർഷം തോറും ചൂട് കൂടി വരുന്നൊരു ടൈമാണല്ലോ ഇപ്പം വേനൽക്കാലത്തെ വൈദ്യുതി വിഛേദം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് രാത്രിയിലുള്ള വൈദ്യുതിയുടെ വിഛേദം ഒക്കെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ അതുപോലെത്തന്നെ ചിലപ്പം വെള്ളം ഇല്ലാത്ത ടൈമൊക്കെ ആവും നമ്മൾ മോട്ടറിൽ വെള്ളം കഴിഞ്ഞ സമയത്തൊക്കെ ആവും കരണ്ട് പോവുകയാണെന്നുന്നെങ്കിൽ അതും വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ഇരുപത്തിനാൽ മണിക്കൂറും നമുക്ക് വൈദ്യുതി കിട്ടുന്ന ദിവസങ്ങളും ഉണ്ട് ഒരു ട്വൻന്റി ഹവേഴ്സ് മാത്രം വൈദ്യുതി കിട്ടുന്ന ദിവസങ്ങളുമുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഹാഫ് ആൻ ഹവറും മാത്രം വൈദ്യുതി പോകുന്ന ദിവസങ്ങളും ണ്ട് അതൊക്കെ ഈ പറഞ്ഞപോലെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈമ് നമുക്ക് ഇതിൽ പറയാൻ കഴിയില്ല കാരണം വൈദ്യുതി എന്ന് പറയുന്ന നമുക്ക് എപ്പം വേണമെങ്കിലും നഷ്ടപ്പെട്ട് പോകുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഉപയോഗം കൂടുന്നതിനനുസരിച്ചൊക്കെ വൈദ്യുതിയിൽ മാറ്റം വരുന്നതാണ്